എൻ്റെ ഗെയിം ബോക്സിൽ ഇങ്ങനെ വെർച്വൽ റിയാലിറ്റി ഗെയിമിങ്ങില്ല പക്ഷേ ഞാനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ദിവസം വയനാട് ട്രിപ്പ് പോയപ്പം അവിടെ പടിഞ്ഞാറത്തറ ഡാം എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം അവിടെ ഞാൻ പിന്നെ വെർച്വൽ റിയാലിറ്റി അതായത് ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് അതായത് കാട്ടിലൂടെ സിംഹമാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് അതായത് നമുക്ക് നമ്മളവിടെ ഉള്ളതുപോലെ നമുക്കൊരു ഫീൽ വന്നു അപ്പം എനിക്കത് കണ്ടിട്ട് ശരിക്ക് പേടിയായിരുന്നു ആദ്യമൊക്കെ എനിക്ക് പിന്നെ ഭയങ്കര ഭയമായിട്ടായിരുന്നു ഞാൻ ചെയ്തത് അപ്പം എല്ലാവരും ഹാ ഹൂ ഹാ ഹാ ഹൂ ഹാ ഹാ ഹാ എന്നൊക്കെ ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പേടിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്തിനാണ് ഇങ്ങനെ പേടിച്ചു കളിക്കുന്നത് എന്തുന്നാ ഇത്ര പേടിക്കാനുള്ളത് കണ്ണിൽ വെക്കുമ്പോളത്തേക്ക് എന്താ ആവുന്നത് നമ്മളുടെ ശരീരത്തിലൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ലെന്നൊക്കെ എന്നിട്ടും ഞാനിങ്ങനെ ചിന്തിച്ചു ചുമ്മാ എന്നോടൊപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീയൊന്നു വെച്ചുനോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാകുമല്ലോയെന്ന് അപ്പം ഹസ്ബൻഡ് അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഹസ്ബെൻഡും ഞാനും വെറുതെ ചുമ്മാ പൈസ കൊടുത്തിട്ട് നൂറു രൂപയാണ് അപ്പം ഞങ്ങളങ്ങനെ വെച്ചുനോക്കി അപ്പം അടിപൊളിയൊരു അതായത് നമുക്ക് നല്ലൊരു പിന്നെ വൈബാണ് അതായത് നമ്മളാദ്യമായിട്ട് ഇത് കാണുന്ന ആ ഒരു ഇതാണല്ലോ അപ്പോൾ ഞാനങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതടിപൊളിയായിരുന്നു